കവടിയാർ റസ്റ്റോറൻറ് അല്ലേ ആ ഞാൻ ഡി അമ്പത്തൊന്നിൽ നിന്നാണ് ആ ഓർഡർ ഒരു ഇപ്പോൾ ഇരുപത് ഇപ്പം ഇരുപത് മിനിറ്റിന് മുമ്പ് ഞാനൊരു ഓർഡർ പറഞ്ഞിരുന്നു ബിൽ നമ്പർ നൂറ്റി മുപ്പത്തിയഞ്ച് എമൗണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ ഓക്കെ ആ ഞങ്ങളൊരു യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഇറങ്ങണം ഓക്കെ ഇപ്പോൾ കൊട് ആ ശരി ശരി ശരി ആയിട്ടുണ്ട് ആ കൊടുത്തയയ്ക്കുമല്ലോ ഇപ്പോൾ കൊടുത്തയയ്ക്കുമല്ലോ ശരി ആ അതുമതി ഓക്കെ ഓക്കെ ഓക്കെ